പറയു ഒരു മൂവാറ്റുപുഴ അയ്യോ ഞാൻ ബസ്സിൻ്റെ ബോഡ് കണ്ടിട്ട് കയറീതായിരുന്നു ആണോ അയ്യോ ഇനി ഇപ്പോൾ എന്താ ചെയ്യാ മൂവാറ്റുപുഴ അയ്യോ

ഓക്കെ ഓക്കെ അവിടുന്ന് കുറെ ദൂരമുണ്ടാവോ ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ താങ്ക് യൂ ഒന്നരക്ക് അല്ലേ പന്ത്രണ്ട് അതെ അതെ ഒന്നരക്കിണ്ടാവുന്ന് ഉറപ്പാണോ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഞാൻ ബസ്സിൻ്റെ ബോഡ് കണ്ടിട്ട് കയറീതായിരുന്നു പറ്റിപ്പോയി ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ വീട് വയനാട്ടിലാണ് വയനാട് പനംമരംന്ന് പറയും ഓക്കെ

ഓക്കെ ശരി ശരി ഓക്കെ ശരി ഓക്കെ ഓക്കെ താങ്ക് യൂ